നമ്മുടെ കേരളത്തിൽ ഫോൺ വന്നതോടെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നുതന്നെയാണ് ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോള് എന്താണ് പറയുക കൊറോണ സമയത്ത് എല്ലാ കുട്ടികളുടെയും എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലെത്തി അതുപോലെത്തന്നെ നമ്മുടെ മുതിർന്നതെന്നുവെച്ചാല് ഇപ്പോള് നമ്മളെക്കാളും രണ്ടായിരത്തിന് മുന്നെ ജീവിച്ചിരുന്ന ആളുകളുടെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞാല് ഇപ്പം മൊബൈലുമായിട്ടത്ര ഒരു പരിചയമൊന്നുമില്ലായിരുന്നു രണ്ടായിരം കഴിഞ്ഞതോടെയാണ് എല്ലാവരും തന്നെ ഫോണിലേക്ക് ഒരു ഇതിലെത്തിയത് മൊബൈലിലേക്കെത്തിയത് അപ്പം നമ്മൾ എന്താണ് പറയുക മൊബൈല് എത്തിയതോടെ പല മാറ്റങ്ങളുമുണ്ടായി ഈ ഇൻസ്റ്റാഗ്രാം വന്നു ഫേസ്ബുക്ക് വന്നു ഫേസ്ബുക്കിലൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി വാട്സ്ആപ്പ് ഗൂഗിൾ മീറ്റ് ഇപ്പോഴെന്താണ് വീഡിയോ കോള് കണ്ടുകൊണ്ട് വിളിക്കാം എല്ലാവര്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോള് പുറത്തുപോയ ഒരാള് വീഡിയോ കോള് ഇങ്ങോട്ട് വിളിക്കുന്നു അവര് കണ്ടുകൊണ്ട് വിളിക്കുമ്പോള് അവർക്കുണ്ടാകുന്ന പല മാറ്റങ്ങളും പിന്നെ ഇപ്പോഴെന്താണ് പറയുക അതും അപ്പം ഇപ്പോള് ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് പോയാല്ത്തന്നെ അത് ട്രാക്ക് ചെയ്യാനുള്ള അവസരം അവരുടെ കയ്യിലുണ്ട് എന്താണ് പറയുക ജി പി എസ് വഴി ട്രാക്ക് ചെയ്യാം അതുപോലെത്തന്നെയാണ് ബാങ്കിങ്ങും പേയ്മെൻറ്റും ഷോപ്പിങ്ങും ഷോപ്പിങ്ങെന്ന് പറയുമ്പോള് നമുക്ക് ആ ഫോണില്ക്കൂടെ പല ഷോപ്പിങ്ങും ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാം പണമിടപാട് നടത്താം പിന്നെ എന്താണ് പറയുക പേയ്മെൻറ്റ് ബാങ്കിങ് ഹോട്ടലില് നിന്ന് ഇപ്പോള് ഒരു അത്യാവശ്യമായിട്ട് ആ നമുക്ക് ഇപ്പം വീട്ടിലെന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കില് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഓർഡര് ചെയ്യണമെങ്കില് മൊബൈലെടുക്കുക പെട്ടെന്ന് ഓർഡര് ചെയ്യുക ഫുഡ് എത്തിക്കുന്നു എന്നിട്ടത് പേയ്മെൻറ്റ് ചെയ്യാന് പറ്റും ഷോപ്പിങ് നമ്മള് പല സമയം എന്താണ് പറയുക ഇപ്പോള് ഷോപ്പിങ് നടത്തണമെങ്കില് എന്താണ് പറയുക ഏത് സമയവും നമുക്ക് ഷോപ്പിങ് മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോള് അതിൽ നമുക്ക് വേണ്ടത് കടയില്ച്ചെന്നാല് നമുക്കിപ്പോള് നമ്മള് നോക്കി നോക്കി മടുക്കും ഇതാണെങ്കില് മൊബൈലിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പയ്യെ നോക്കി നോക്കി നോക്കി നമുക്ക് എന്താണ് ഏതെങ്കിലുമൊന്ന് തെരഞ്ഞെടുത്താല് മതി അല്ലെങ്കില് ഇപ്പോള് അല്ലാതെ ചെയ്യുകയാണെങ്കില് നമുക്ക് കടയില് ചെന്നാല് നമ്മള് പെട്ടെന്ന് നമുക്ക് ചേരാത്തൊരെണ്ണം എടുത്തുകൊണ്ടിങ്ങ് പോരും പക്ഷേ മൊബൈലില് അങ്ങനെയല്ല നമുക്ക് കൃത്യം നോക്കി പയ്യെ തെരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതുമാത്രം നമുക്കെടുത്ത് ഓർഡര് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കില് നമുക്ക് വീണ്ടുമത് എന്താണ് ഇതു ചെയ്യാന് പറ്റും ക്യാൻസല് ചെയ്യാന് പറ്റും പിന്നെ ഹോട്ടലില് നിന്ന് നമ്മളിപ്പം എവിടെയെങ്കിലും പോകുകയാണെങ്കില് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാനാണെങ്കില് ഇതില് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം മൊബൈൽ ഫോണില് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റും ടിക്കറ്റെടുത്താല് നമുക്കെളുപ്പമാണ് സ്മാർട്ട് ഫോണില് ടിക്കറ്റ് ബുക്ക് ചെയ്താല് എളുപ്പമാണ് പിന്നെ ടിക്കറ്റുകളെന്ന് പറയുമ്പോള് നമുക്കിപ്പം ടിക്കറ്റ് ക്യാൻസല് ചെയ്യണമെങ്കിലും ഇതില് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും